മലയാള ഭാഷയാണ് കൂടുതൽ ആളുകൾ ഉപയോഗിക്കാൻ വേണ്ടി ഇഷ്ടപ്പെടുന്നത് കാരണം നമ്മുടെ നാടിൻ്റെ ഭാഷയും നമ്മുടെ സംസാര രീതിയും മലയാളമായത് കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ മാതൃഭാഷയായ മലയാളമാണ് നമുക്ക് കൂടുതൽ ഉപയോഗിക്കാൻ താൽപ്പര്യം അങ്ങനെയുള്ള ചാനലുകളാണ് നമുക്ക് കൂടുതൽ കാണാനായിട്ട് താൽപ്പര്യം കാണാനും കേൾക്കാനും മനസ്സിലാക്കാനുമൊക്കെ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ മാതൃഭാഷയായ മലയാളമാണ് നമുക്ക് കൂടുതൽ ഇണങ്ങുന്നത് അതുപോലെ ഓരോ വ്യക്തികളുടെയും ഭാഷാ രീതിയും ശൈലിയും എല്ലാം അവരുടെ അവരുടെ കേൾവിയെ സ്വാധീനിക്കുന്നു കാരണം കേൾക്കുന്ന സഹകാര്യങ്ങൾ ഇപ്പം മലയാളമായാലും നമുക്ക് അത് നമ്മുടെ രക്തത്തിൽ അലിഞ്ഞൊരു ഭാഷയായതു കൊണ്ട് തന്നെ നമുക്ക് അത് ഏത് രീതിയിലായാലും നമുക്ക് അത് കൈകാര്യം ചെയ്യാൻ നമ്ക്ക് പറ്റും അതുപോലെ നമുക്ക് ഹിന്ദിയോ ഇംഗ്ലീഷോ നമുക്ക് പറയാനൊക്കെ പറയാനോ കേട്ടു കഴിഞ്ഞാൽ മറുപടി പറയാനോ അത്രക്ക് എളുപ്പമല്ല അത്കൊണ്ടു തന്നെ മലയാളഭാഷയാണ് നമുക്ക് കൂടുതൽ ഉത്തമം അതുകൊണ്ട് മാതൃഭാഷയായ മലയാളമാണ് നമുക്ക് കൂടുതൽ വാർത്തകൾ കേൾക്കാനും മനസിലാക്കാനും ഉത്തമമെന്ന് തോന്നുന്നു മറ്റു വാർത്തകൾ നമുക്ക് അത്രക്ക് നമുക്ക് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുമെങ്കിൽ പോലും നമുക്ക് അതിൻ്റെ ആശയം അത്രയും അത്ര നമ്മൾക്ക് നമ്മളുടെ മാതൃഭാഷ ആ ഭാഷയിൽ കിട്ടുന്ന ആ ഒരു എക്സ്പീരിയൻസൊന്നും നമുക്ക് ലഭിക്കുകയില്ല നമുക്ക് പൂർണ്ണമായും ആയ ആ വാർത്തയുടെ ആ ഉദ്ദേശം നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മുടെ മാതൃഭാഷയിൽ തന്നെ നമുക്ക് ആ വാർത്ത ലഭിക്കണം അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഭാഷയായ മലയാളം തന്നെയാണ് നമുക്ക് കൂടുതൽ ഉത്തമം വാർത്ത കേൾക്കാനും മറ്റേത് കാര്യങ്ങൾക്കും പറയാനും സംസാരിക്കാനും നമുക്ക് എല്ലാ എല്ലാ കാര്യങ്ങളും നമുക്ക് സംരക്ഷണം ചെയ്തു കിട്ടുവാനും നമ്മൾ കൂട്തൽ താല്പര്യം താല്പര്യപ്പെടുന്നത് മാതൃഭാഷയായ മലയാളം തന്നെയാണ് വാർത്ത ആയാലും പല ചാനലുകളിൽ കൂടെ ലഭിക്കുന്ന വാർത്തകൾ നമുക്ക് നമ്മുടെ മാതൃഭാഷയിൽ തന്നെ ലഭിക്കിമ്പോഴാണ് നമുക്ക് അത് കൂടുതൽ ഉപയോഗപ്രദമാവുന്നത് അതുകൊണ്ട് നമുക്ക് നമ്മുടെ നാടിൻ്റെ ഒരു രീതി അനുസരിച്ചു നമ്മുടെ മാതൃഭാഷയായ മലയാളം തന്നെയാണ് ആൾക്കാർ കൂടുതലും ചാനലുകളിൽ വാർത്താ ചാനലുകളിലും മറ്റു ചാനലുകളിലും ഉപയോഗിക്കാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്